ആദ്യം എൻ്റെ കയ്യിലുണ്ടായത് ബട്ടൺ ഫോണാണ് ഇപ്പോൾ എനിക്ക് എൻ്റെ മോൻ ഒരു സ്മാർട്ട്ഫോൺ വാങ്ങിച്ച്തന്നിട്ടുണ്ട് അതാ ഇപ്പോൾ നല്ല കാര്യമായി നിന്ന് ആദ്യത്തെ ഫോണിന്ന് ബട്ടൺ ഫോണിൽ നിന്ന് ഒന്ന് കോൽ ചെയ്യുക തിരിച്ച ഇങ്ങോട്ട് വരുവ അത്രേയും ഉണ്ടായിരുന്നുള്ളു ഇപ്പോൾ മക്കളെ വിളിക്കുകയും കാണുകയും അത് പോലെ യൂട്യൂബ് വഴി പല കാര്യങ്ങളും നമുക്കറിയാം അത് വഴി കറണ്ട് ബില്ലടയ്ക്കാം എന്ത് വേണമെങ്കിലും അതിനൊക്കെ നമുക്ക് സൗകര്യങ്ങളായി പിന്നെ മോനൊക്കെ വിദേശത്തുള്ള മക്കളോടൊക്കെ ഓൺലൈൻ സംസാരിച്ച് അവര് ജോലി ചെയ്യുന്നത് വരെ കാണിച്ച് തരാറുണ്ട് ഇപ്പോൾ അത്കൊണ്ട് നമുക്ക് കുറെ സന്തോഷമാണ് കുട്ടികളെ കാണാനും എടുക്കാനും ഒക്കെ ഈ ഫോൺ കൊണ്ട് നമുക്ക് ഹേ ഒരുപാട് ഉയരങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുവാണ് എന്താ പറയുന്നത് എന്ന് വച്ച് കഴിഞ്ഞാല് ഈ സ്മാർട്ട്ഫോൺ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ട് പിള്ളേര് ഇപ്പോൾ അത് കയ്യിൽ നിന്ന് വെക്കുന്നില്ല അതുകൊണ്ടു യൂട്യൂബില് ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനും കേൾക്കാനുമൊക്കെ ഉണ്ട് ഇപ്പോൾ രാഷ്ട്രിയം വരെ യൂട്യൂബിൽ പറയുന്നുണ്ട് അത് നമുക്ക് എന്താന്ന് വച്ച അറിവും തരുന്നുണ്ട്